ഈ ജോലി സ്ഥലത്ത് സംഘർഷങ്ങളും പ്രയാസങ്ങളും എല്ലാം എന്നെ സംബന്ധിച്ചെടുത്തോളം അതെല്ലാം മാറുന്നത് ജോലിയിൽ ചെന്ന് ഒരു ലോഡ് പ്രഷറും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടെങ്കിൽപ്പോലും ഞാനൊന്ന് സന്തോഷിക്കുന്നത് അല്ലെങ്കിൽ ഞാനൊന്ന് റിലീഫ് ആകുന്നത് എൻ്റടുത്ത് ഞാൻ സ്നേഹിക്കുന്ന ഒരാൾ ഉണ്ടാകുമ്പോഴാണ് ഞാൻ ഇത്രയ്ക്ക് പ്രഷറിൽ ഇരിക്കുമ്പോൾ എന്നെ ഒന്ന് കൂളാക്കാൻ അല്ലെങ്കിൽ എന്നെ ഒന്ന് മനസ്സിലാക്കി കൂടെ നിൽക്കാൻ ഒരാളെങ്കിൽ ഒരാൾ ആ ഒരാളുണ്ടെങ്കിൽതന്നെ നമുക്ക് ഒരുപാട് റിലീഫും കാര്യങ്ങളും എല്ലാം കിട്ടും അതെനിക്ക് അനുഭവമുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്നെ സംബന്ധിച്ചെടുത്തോളം എൻ്റെ റിലീഫ് അല്ലെങ്കിൽ എനിക്കൊരു സഹായമെന്നു പറയുന്നത് എൻ്റെ ഹസ്ബന്റ് തന്നെയാണ് ഞാൻ എന്തെങ്കിലും ടെൻഷനിലോ അല്ലെങ്കിൽ എന്തിലെങ്കിലും ഇരിക്കുമ്പോൾ എന്നെ സഹായിക്കുന്നത് എന്നെ ഒന്ന് കൂളാവാൻ സഹായിക്കുന്നത് എന്നും എൻ്റെ ഹസ്ബന്റ് തന്നെയാണ് അതുപോലെതന്നെ ഇതിപ്പോൾ ഹസ്ബന്റ് ആവണമെന്നൊന്നും ഇല്ല മറ്റൊരാളെക്കുറിച്ച് ആണെങ്കിൽ അതൊരു ഫ്രണ്ട് ആകാം അല്ലെങ്കിൽ അതൊരു കസിൻ ആകാം അല്ലെങ്കിൽ ഒരു ഫാമിലി ആകാം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നെ സംബന്ധിച്ചെടുത്തോളം എന്നെ ഇങ്ങനെ കൂളാക്കാൻ സഹായിക്കുന്നത് എൻ്റെ ഹസ്ബന്റ് തന്നെയാണ് അതിൽ ഞാൻ ഹൺഡ്രഡ് പെർസൻ്റേജ് ഹാപ്പിയുമാണ്